ഹലോ കച്ചേരി കാണാൻ വേണ്ടി ബുക്കിങ്ങിന് വേണ്ടീട്ട് വിളിക്കുന്നായിരുന്നു നമ്മൾ പേയ്മെന്റോക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഓൺലൈൻ വഴിയായിട്ടാണോ അതോ അവിടെ വന്നിട്ട് ഓഫ്ലൈൻ വഴി അടയ്ക്കണോ പിന്നെ ഫണ്ടൊക്കെ എങ്ങനെയാണ് സ്ഥലം ഒക്കെ എവിടെയായിട്ടാണ് ആ പിന്നെ അവിടെ വന്നിട്ട് എടുക്കുവാണെങ്കിൽ ഫണ്ടെങ്ങനെ കുറയുവാണോ അല്ലേൽ ഓൺലൈൻ വഴിയാകുമ്പം ഫണ്ട് പത്തൊൻപത് ഒക്കെ വെച്ച് കൂടും എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റിങ്ങും കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് പിന്നെ അവിടെ വന്ന് ചെയ്യണം എങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഒരു അഞ്ച് സീറ്റാണ് അതും ഒരു സെൻ്റ റോ തന്നെ കിട്ടുവാണെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു ഞങ്ങൾ ഒരു അഞ്ച് പേർ ഉണ്ട് പിന്നെ അവിടെ എങ്ങനെയാണ് ടീ കോഫി അങ്ങനെ ഒക്കെ ഉണ്ടാവോ ഹാളിലേക്ക് അതൊക്കെ പ്രവേശിക്കാൻ പറ്റുമോ എങ്ങനെയാണ് അവിടുത്തെ ഒരിത് ഒക്കെ